പിന്നേ ഇത് മൊബൈലിൽ സർവ്വീസ് കിട്ടുന്നതിനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു അത് ന്നേ അതിൻ്റെ സേവനങ്ങളെ കുറിച്ചുള്ള ഒരു മെസ്സേജ് എനിക്ക് വരുന്നതായിട്ട് അലവൻസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് താല്പര്യമുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുവാനാണ് അത് ഏർപ്പെടുന്ന ഒരു ചാർജിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് എനിക്ക് ഉടനെ തന്നെ ഒന്ന് അയച്ചു തരുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് എനിക്ക് ഉപകാരപ്രദമായിരിക്കും